മത്സ്യബന്ധനം അത് ശരിക്ക് ഒരു എന്താ പറയുക നമ്മൾ ഒരു അപകടം പിടിച്ച മേഖല തന്നെയാണ് നമുക്ക് കാരണം നമ്മുടെ കടല് അല്ലെങ്കിൽ നമ്മുടെ കടലമ്മ എന്ന് പറയുമ്പോൾ അതിൽ നോക്കാൻ എന്ന് പറയുമ്പോൾ എപ്പോഴാണ് പ്രക്ഷുബ്ധം ആവാമെന്ന് നമുക്ക് ഒരാൾക്ക് പോലും പറയാൻ പറ്റില്ല ഇപ്പോഴും നമ്മുടെ കടലില് നമ്മുടെ ശാസ്ത്രീയ പരമായി നോക്കാമെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ലോകത്ത് തന്നെ വെറും അഞ്ചു ശതമാനം മാത്രമാണ് നമുക്ക് നമ്മുടെ കടലിനെ കുറിച്ച് അറിയാൻ പറ്റിയിട്ടുള്ളത് ബാക്കി തൊണ്ണൂറ്റഞ്ചു ശതമാനം കടലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ഇപ്പോഴും അറിയില്ല എന്നാണ് നമ്മുടെ ശാസ്ത്രലോകം പറയുന്നത് അവിടെ എപ്പോഴാണ് ഓളം വരുക എപ്പോഴാണ് കാറ്റു പിടിക്കുക എപ്പോഴാണ് കടൽ പ്രക്ഷുബ്ധം ആകുക ഒന്നും പറയാൻ പറ്റില്ല നമ്മൾ വിചാരിക്കുന്ന പോലെയും ആയിരിക്കില്ല ഒരു സമയത്ത് ശാന്തമായി ഇരിക്കുന്ന കടൽ ചിലപ്പോൾ വിത്ത് മിനിമം സെക്കൻഡ് കൊണ്ടായിരിക്കും ആകെ എന്താ പറയുക അല്ല അലകളും തിരമാലകളൊക്കെ വരുക അപ്പൊൾ അങ്ങനെ നോക്കാണെന്ന് പറയുമ്പോൾ നമ്മുടെ കടലില് ഈ മത്സ്യബന്ധനം നടത്തുന്നത് വലിയ ഒരു വെല്ലുവിളി തന്നെയാണ് പിന്നെ അതിൻറെ ഒപ്പം തന്നെ നമുക്ക് എന്താ പറയുക അത് കടലിൽ പോയി മീൻ പിടിച്ചു വന്നാൽ തന്നെ അത് വിൽക്കാനുള്ള ഒരു സംവിധാനങ്ങൾ അത് നല്ല രീതിക്ക് നല്ല വില കിട്ടുന്ന രീതിയില് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല ഇപ്പൊൾ ഏജന്റ്മാര് ആകുമ്പോൾ അവര് അവരുടെ രീതിക്കുള്ള പൈസ ഇട്ടു തരും അവർക്ക് വെറുതെ ഇടനിലക്കാരായി നിന്ന് നല്ല ലാഭം കിട്ടുന്ന ഒരു അവസ്ഥ ആ രീതിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ആ കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മഴ കാറ്റ് ചുഴലിക്കാറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു പെടുമ്പോൾ നമുക്കത് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്